നമ്മുടെ ഗവൺമെൻറ് പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നുണ്ട് അതുപോലെ ഇന്ന് പ്രസവത്തിനും സഹായം നൽകുന്നുണ്ട് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പഠനം സൗകര്യം ഒക്കെ കൊടുക്കുന്നുണ്ട് പാവങ്ങൾക്ക് പിന്നെ വീട് വെക്കാനായിട്ട് ഘട്ടം ഘട്ടം ആയിട്ടാണ് പൈസ കൊടുക്കുന്നത് അര ലക്ഷം വരെ രൂപ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ പാവങ്ങൾക്ക് വീട്ടിലെ കക്കൂസ് ഇല്ലെങ്കിലും കിണർ കുത്താനും പിന്നെ വീട് മെയിൻ്റനൻസ് ചെയ്യാനും ഒക്കെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെട്ടു വരുന്നുണ്ട് പണ്ടത്തെപ്പോലെ ഒരു ഘട്ടം പൈസ വാങ്ങിച്ചിട്ട് അത് ബേസ്മെന്റ് തൊട്ടിട്ട് പിന്നെ ബാക്കി പൈസ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും വീട് വെക്കാതെ ചിലവാക്കി കളയാൻ പറ്റില്ല ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ വീട് വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കണം അതുപോലെ ബേസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത ടേൺ പൈസ കിട്ടുകയുള്ളൂ അതുകഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബാക്കി ലിൻ്റൽ മറ്റും ആകുമ്പോഴേക്കും വീണ്ടും ഫോട്ടോയെടുത്ത് കാണിച്ചാൽ മാത്രമേ അതുവരെ ചെയ്തതിൻ്റെയുള്ള പൈസ കിട്ടുകയുള്ളൂ അതുകൊണ്ട് സർക്കാർ ഓരോ പദ്ധതിയും വളരെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കും കള്ളം കാണിക്കാൻ ഒന്നും പറ്റില്ല വീടു പൂർത്തിയായിട്ട് മാത്രമേ കമ്പ്ലീറ്റ് പൈസയും ഗവൺമെൻറ് നൽകുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകുകയും ഒരുപാട് ആൾക്ക വീടില്ലാത്തവർക്ക് വീട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏരിയയിൽ ഒക്കെ ഒരുപാട് ആൾക്കാരുടെ വീടുകൾ നല്ല പോലെ പൂർത്തിയാക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എല്ലാവിധ പൂർണ്ണ പിന്തുണയും ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് ജനങ്ങളിലെയും പിന്നെ ആശുപത്രികളിലെ ഉച്ചഭക്ഷണം എത്തിക്കുന്നുണ്ട് സ്കൂളിലെ കാപ്പി ഉച്ച ഭക്ഷണം ഇതിനുള്ള ഫണ്ട് നൽകുന്നുണ്ട് സ്കൂൾ വാൻ നൽകുന്നുണ്ട് സ്കൂളിലെ മികച്ച കെട്ടിടങ്ങൾ നൽകുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്